ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഭൂമി ഇടപാടുകളിൽ ആൾക്കാ ആളുകൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതലായിട്ടും പട്ടയമില്ലാത്ത ഭൂമികളൊക്കെയാണ് അങ്ങനത്തെ ഭൂമികളൊക്കെ ഉണ്ടെങ്കിൽ ചിലർ വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ പട്ടയം ഇല്ലാത്ത ഭൂമിയാണെന്നൊക്കെ അറിയുമ്പോൾ അങ്ങനെ കുറേ പ്രശനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക് കൈവശ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലുണ്ടാവില്ല അപ്പോൾ അത് വളരെ നേരിടുന്നൊരു പ്രശ്നമാണ് പിന്നെ ഇവരുടെ ഭൂമിയിൽ നമ്മളിപ്പോൾ ഒരു ജന്മഭൂമി പിന്നെ നമ്മൾ അല്ലാത്ത ഭൂമി അങ്ങനത്തെ കുറേ ഭൂമികളുണ്ട് ജന്മഭൂമി ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വയ്ക്കാം വിൽക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റുന്നതാണ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ മരങ്ങളുണ്ടോ ഏതൊക്കെ മരങ്ങളുണ്ടോ ഇപ്പോൾ ഈട്ടി അതൊന്നും നമുക്ക് മുറിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല അതൊക്കേ നേരെ ആ അതായത് പട്ടയ ഭൂമിയിലുള്ളത് എല്ലാം അവിടെത്തന്നെ അതായത് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ എല്ലാ ഡീറ്റൈൽസ് കാര്യങ്ങളൊക്കെയുണ്ട് നമുക്ക് അതൊന്നു തൊടാൻ പോയിട്ട് അതിന്റെ ചില്ല വെട്ടാൻ പോലും നമുക്ക് അവകാശം ഇല്ല അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ ഉള്ള ഭൂമികളൊക്കെ ആണെങ്കിൽ എന്താണ് പറയുക അതിന്റെ എല്ലാ കണക്ക് കാര്യങ്ങളൊക്കെ വില്ലേജ് ഓഫീസിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഭൂമി വിൽക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നടക്കുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്